ഹലോ ജോസ്ന ചേച്ചി ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു തുണി തയ്ക്കാൻ കൊണ്ടുവന്ന് തന്നില്ലായിരുന്നോ ഒര് ചുരിദാര് പീസ് എനിക്ക് അത് നാളെ കഴിഞ്ഞത്തേക്ക് തയിച്ച് തരുമോ

അതെയോ എനിക്ക് അത്യാവശ്യമായിരുന്നു എന്നാന്നോ ഞങ്ങൾ നേരത്തെ ഞാനത് കൊണ്ടുതന്നപ്പോൾ ഒരു പ്രോഗ്രാമും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഡേറ്റ് പറയാഞ്ഞത് എനിക്ക് ഇന്നിപ്പം ഒരു പ്രോഗ്രാം വന്നു ഞാങ്ങൾക്ക് കോളേജിലൊരു ഒരു ആർട്ട് ഫെസ്റ്റ് പോലൊരു ഡേ ആണ് നാളെ കഴിഞ്ഞ് ആ അപ്പം എനിക്ക് ആണേൽ ഞാൻ പുതിയത് ഒന്നും എടുത്തതൊന്നും വേറെ തയിച്ചിട്ടും ഇല്ല അപ്പം എനിക്കിത് വേണമായിരുന്നു അങ്ങനെ വേറൊന്നും എനിക്ക് അതെ അതെ കോളേജിലും കൂടായത് കൊണ്ട് അറിയാമല്ലോ എപ്പളും ഇട്ടത് തന്നെ ഇട്ടാൽ എല്ലാവരും ശ്രദ്ധിക്കും

ഉയ്യോ അതെയോ

ഈ എങ്ങനെ എങ്കിലും ഒന്ന് അതെ എങ്ങനെ എങ്കിലും ഒന്ന് തയ്ച്ച് തരാമോ

അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല അത് നമുക്ക് ചെയ്യാം ആ അത് കുഴപ്പമില്ല ചേച്ചി അത് നമുക്ക് ചെയ്യാം അത് കുഴപ്പമില്ല അപ്പം എനിക്ക് തയിക്കുമ്പോൾ സ്ലിറ്റ് കുറച്ച് ഇറക്കി വേണേ എനിക്ക് തയിക്കാൻ ആ സ്ലിറ്റ് കുറച്ച് ഇറക്കി സാധാരണ തയിക്കുന്നതിൽ നിന്ന് ഇചിരിയും കൂടെ ഇറക്കി ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ തയിക്കുന്ന ആ ഒരു ഇചിരിയും കൂടെ ഒരു ഒന്ന് ഒന്നരയിഞ്ച് വല്ലതും ഇറക്കിയാൽ മതി ആ അത് ഇറക്കി തയ്ക്കണം പിന്നെ കയ്യ് എനിക്ക് വെക്കുമ്പം കുറച്ച് ലെങ്ത് ആയിട്ട് കൈ വെക്കണം നമ്മൾ ത്രീ ഫോര്ത്തല്ല ഫുള്ള് വെയ്ക്കാവോ ഫുള്ള് വെക്കാൻ നോക്കണെ

ആ തുണി ആ കാണുവായിരിക്കുമല്ലോ ആ അത് അത് കയ്യും ഫുള്ള് വെയ്ക്കണം പിന്നെ അതിന്റെ ഞാൻ അതിന് ലേയ്സ് മേടിച്ചില്ലായിരുന്നു അതിൻ്റെ ബോട്ടം ഭാഗത്തൊരു ലേയ്സും കൂടെ വെയ്ക്കാവോ ചേച്ചി മേടിച്ചിട്ട് വെച്ചേക്കാമോ ആ അത് അത് വയ്ക്കണം അത് കുഴപ്പമില്ല അത് സാരമില്ല ചേച്ചി നാളെ കഴിഞ്ഞത്തേന് റെഡിയാക്കി തരണേ അല്ലെങ്കിൽ ഇനി ഭയങ്കര ബുദ്ധിമുട്ടായി പോകും

അതെ അതെ മാറ്റി വെയ്ക്കാനും പറ്റത്തില്ല എനിക്കറിയാം പക്ഷേ ഞാനും അങ്ങനെ ഒരു സാഹചര്യത്തിലായി പോയത് കൊണ്ടാണ് അല്ലേൽ ഞാൻ അർജന്റ് ആയി ഒന്നും പറയുവേലായിരുന്നു പിന്നെ ആ പിന്നെ എനിക്ക് കഴുത്ത് വയ്ക്കുമ്പോൾ കഴുത്ത് വയ്ക്കുമ്പോൾ സ്ക്വയറ് കഴുത്ത് വെച്ചാൽ മതി സ്ക്വയറ് ചെയ്താൽ മതി ആ പിന്നെ അതിന്റെ ഷോളില് എനിക്ക് ആ ടോപ്പിന്റെ കുറച്ച് പോർഷൻ വെക്കാവോ ഷോളിന്റെ ഈ സൈഡിൽ ആ സൈഡിൽ കാരണം അത് പ്ലെയ്ന് ഷോളല്ലേ അതിൽ വര്ക്കൊന്നു ഇല്ലല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യണേ ഹാ പിന്നെ പാന്റെനിക്ക് സിഗറേറ്റ് ബോട്ടം തയ്ച്ചാൽ മതി സിഗറേറ്റ് ബോട്ടം അതിന്റെ അളവെടുത്തിട്ടുണ്ടല്ലോ അതെ അതെ ആ നമ്മൾ നേരത്തേ തയ്ച്ചതിന്റ അളവുണ്ടല്ലോ പിന്നെ കാല് ആ അത് മതി ആള് ലെഗ്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചത് നല്ല ലെഗ്തിൽ അല്ലേ ഒരെണ്ണം തയ്ച്ചത് അതിന്റെ അളവ് എടുത്താൽ ആ അത് മതി

ആ അത്രയും ഉള്ളു അപ്പം എന്നാൽ നാളെ കഴിഞ്ഞത് തരില്ലേ ആ എന്നാൽ ഓക്കെ താങ്ക്യൂ